ആരോഗ്യമുള്ളവരായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് അവരെങ്ങനെയാണ് എങ്ങനെയാണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ ശരീരഭാരം കുറയ്ക്കാനും മെൻ്റലിയുള്ള സ്ട്രെസ്സൊക്കെ എന്തു ചെയ്യാൻ വേണ്ടിയിട്ട് റിമൂവ് ചെയ്ത് കളയാനൊക്കെ ഡാൻസ് എന്തു ചെയ്യാറുണ്ട് ആളുകളെ സഹായിക്കാറുണ്ട് പിന്നെ ഡാൻസു കളിക്കുമ്പം സന്തോഷം തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വലരെ റിലാക്സ് ആയിട്ട് യാതൊരുതരത്തിലുള്ള സ്ട്രെസ്സും എന്തു ചെയ്യുന്നില്ല അനുഭവിക്കാതെയാണ് നൃത്തം ചെയ്യുന്നത് ആഘോഷിക്കുകയാണ് സന്തോഷം ചെയ്യുകയാണ് സോറി സന്തോഷം എന്താണ് പ്രകടിപ്പിക്കുന്നതാണ് ഡാൻസ് വഴി അപ്പം എന്താണവർ മെൻ്റലി എന്താണവരുടെ സ്ട്രെസ്സ് എല്ലാം ഒഴിവാകുന്നതുകൊണ്ടാണ് ആളുകൾക്ക് ഡാൻസ് കളിക്കുന്ന സമയത്ത് സന്തോഷം തോന്നുന്നത്